പരമ്പരാഗതമായ രൂപമായ പേനയും പേപ്പറും വെച്ച് എഴുതാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പേനയും പേപ്പറും വെച്ചിട്ട് തന്നെ എഴുതിയിരുന്നാണ് ഇന്നത്തെ യുഗത്തിലേക്കാണ് ലാപ്ടോപ്പും മൊബൈൽ ടൈപ്പിംഗൊക്കെ വന്നിരിക്കുന്നത് അതുപ്രകാരം ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ മൊബൈലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനും മറ്റുള്ള സ്ട്രെയിൻ കൂടുതലും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് എനിക്കെപ്പോഴും താൽപര്യം നമ്മുടെ പേനയും പേപ്പറും വെച്ച് എഴുതി എഴുതാൻ തന്നെയാണ് പിന്നെ ഈയിടെ വന്നവർഷം ഈയിടെ വർഷങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയണത് നമ്മൾ നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇപ്പം എല്ലാവരും കൂടുതലും പേനയെക്കാളും പേപ്പറിനെക്കാളും കൂടുതൽ ഇ ബുക്ക് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഇ ബുക്കിൽ നമ്മൾക്ക് എന്തു വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാനും ഉള്ള ആ ഓപ്ഷൻസും കാര്യങ്ങളുമൊക്കെയുണ്ട് അത് റെക്കോഡിക്കലായിട്ട് നമുക്ക് ഇ ബുക്കിൽ തന്നെ റെക്കോഡ് ചെയ്തു വെയ്ക്കാനും പറ്റും എഴുതിയ കാര്യങ്ങളാണെങ്കിലും എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കൂടുതൽ ഉപയോഗപ്രദമാണ് ഇ ബുക്കെന്ന് പറഞ്ഞ ഒരു മൊബൈൽ സംവിധാനത്തിലുള്ള ഒരു സംഭവമാണത് അത് നമുക്ക് കൂടുതൽ ഉപകരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്